നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കര്ഷകരുടെ അവസ്ഥ ചര്ച്ച ചെയ്യുമ്പോള് മാധ്യമങ്ങള് ഒരു പരിധിവരെ സത്യസന്ധത പുലര്ത്തുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കില് പറയാം അത് നമ്മുടെ കര്ഷകരുടെ ഓ വളരേയേറെ പ്രതിസന്ധികള് പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് കേരളത്തില് നമ്മുടെ കര്ഷകര് കടന്നുപോകുന്നത് കര്ഷകരുടെ റബറിനായാലും വിലയെല്ലാം ഇടിഞ്ഞ ഒരു അവസ്ഥയാണ് അതുപോലെത്തന്നെ എന്ത് വിളകളായാലും എന്ത് കാര്ഷിക ഉത്പന്നങ്ങളായാലും അതിനെല്ലാം അതിന് തക്കതായ മൂല്യം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തില് അതുകൊണ്ട് കര്ഷകര് നമ്മുടെ കേരളത്തിലെ കര്ഷകർ എല്ലാവരും തന്നെ വളരേയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത് അപ്പം ഇതെല്ലാം മാധ്യമങ്ങള് ചര്ച്ചാവിഷയം ആക്കുകയും സര്ക്കാരിനെ സര്ക്കാരിന്റെ കണ്മുന്നില് പെടുത്തുകയും ഒരു പരിധിവരെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എന്റെ നാടായ എന്റെ നാട്ടില്ത്തന്നെ ഒരു പ്രശ്നം ഉണ്ടായി കര്ഷകര്ക്ക് ഒരു വെല്ലുവിളിയായി പ്രശ്നമായൊരു പ്രശ്നം ഉണ്ടായി ഒരു മലയോരമേഖലയാണ് എന്റെ നാട് ഈ മലയോരമേഖലയില്ത്തന്നെ ഏറ്റവും കൂടുതല് കര്ഷകരാണുള്ളത് ഭൂരിഭാഗം എല്ലാ ആള്ക്കാരും കര്ഷകര് തന്നെയാണ് ഇവിടെ ഉള്ളത് റബറും റബറ് നെല്ല് കഴുങ്ങ് ജാതി തുടങ്ങിയ കര്ഷക കര്ഷകവിളകളാണ് ഇവിടെ ഏറ്റവും കൂടുതല് കാണാന് സാധിക്കുന്നത് അപ്പോള് ഇവിടെയെക്കെത്തന്നെ ഒരു വനമേഖലയാണ് ഇതിനടുത്ത് അതുകൊണ്ട് ഇവിടെ ഒരു ബഫര് സോൺ എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ ഈയിടയ്ക്ക് ഉണ്ടായി ഇത് ഇതിനെല്ലാം നമ്മുടെ മാധ്യമങ്ങളുടെ ഇടപെടലുകള് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുടെ ഇടയില് ഈ പ്രശ്നത്തെ ബോധവല്ക്കരിക്കാന് തുടങ്ങിയ കാര്യങ്ങള്ക്കെല്ലാം നാട്ടുകാർ എല്ലാവരും അറിയുന്നതിനും ഈ മാധ്യമങ്ങള് സഹായകരമായിട്ടുണ്ട് അതുകൂടാതെ ഈ പ്രശ്നങ്ങള് വലുതായി ഊതിപ്പെതി പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പ്രവണത കൂടി മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുമൂലം ആവശ്യമില്ലാത്ത ടെന്ഷന്കളും വേവലാതികളും ജനങ്ങള്ക്ക് ഉണ്ടാവുന്നത് സാധാരണമായ ഒരു കാര്യമാണ് എന്നിരുന്നാലും നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കര്ഷകരുടെ അവസ്ഥ ചര്ച്ച ചെയ്യാന് മാധ്യമങ്ങള് സത്യസന്ധത പുലര്ത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം സര്ക്കാരെ നമ്മുടെ കര്ഷകരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ആവശ്യ ആവശ്യങ്ങളും ആവശ്യങ്ങളും ആവശ്യകതയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം സര്ക്കാരിനെ അറിയിക്കുന്നതില് മാധ്യമങ്ങള് സത്യസന്ധത നല്ല രീതിയില്ത്തന്നെ പുലര്ത്തിയിട്ടുണ്ട് പല മാധ്യമപ്രവര്ത്തകരും ഇതിനുവേണ്ടി നൂറ് ശതമാനം അവരുടെ എഫോര്ട്ട് എടുത്ത് ഇതിനുവേണ്ടി നിന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സര്ക്കാരില് വേണ്ടവിധം കാര്യങ്ങള് എത്താനും വേണ്ട വിധം ഇടപെടലുകള് നടത്തുവാനും സര്ക്കാരിന് ഒരു പ്രഷര് ഒരു പ്രഷർ എന്നൊരു രീതിയില് മാധ്യമങ്ങള് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്തെ കര്ഷകരുടെ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ കര്ഷകരുടെ കാര്ഷികരുടെ അവസ്ഥ ചര്ച്ച ചെയ്യാന് മാധ്യമങ്ങള് സത്യസന്ധത പുലര്ത്തിയിട്ടുണ്ടെന്നുതന്നെ നമുക്ക് പറയേണ്ടി വരും പറയാന് സാധിക്കും